എടത്വ പള്ളി വളരെ പുരാതനമായ ഒരു പള്ളിയാണ് ആ പള്ളിയിൽ ധാരാളം ഭക്തജനങ്ങൾ എത്താറുണ്ട് മെയ് മാസത്തിലാണ് അവിടെ പെരുന്നാൾ നടക്കാറ് മെയ് ഏഴാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ അവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് പ്രാർത്ഥനയിൽ സംബന്ധിക്കാറുണ്ട് പിന്നെ നേർച്ച ഭക്ഷണം കൊടുക്കാറുണ്ട് അവിടത്തെ പ്രധാനമായിട്ടുള്ള കാര്യം എന്നു വെച്ചാൽ അവിടെ നമ്മുടെ ഇഴ ജന്തുക്കളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഇഴ ജന്തുക്കൾ ഏത് വന്നാലും നമുക്ക് അവിടെ നമുക്ക് പ്രാർത്ഥിച്ചാൽ നമ്മുടെ അതെല്ലാം അതിന്ന് നമ്മളെ മാറ്റിത്തരും അതിന് നമുക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഞങ്ങളവിടെ ഒത്തിരി തവണ സന്ദർശിക്കാറുണ്ട് ഒത്തിരി ഒത്തിരി ഒത്തിരി പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വ് പല കുർബ്ബാനകളുണ്ട് പെരുന്നാളിൻ്റെ സമയത്താണെങ്കിൽ ഒരുപാട് കുർബാനകളുണ്ട് അതായത് തമിഴ് കുർബ്ബാന മലയാളം കുർബ്ബാന അങ്ങനെ പല കുർബ്ബാനകൾ അവിടെ നടക്കാറുണ്ട് അതിനെല്ലാം നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒത്തിരി എന്ന കൊല്ലത്തൂന്നും അവിടുന്നും ഇവിടുന്നൊക്കെ ഒത്തിരി ആൾക്കാർ വന്ന് അവിടെ സന്ദർശിച്ച് അവിടുത്തെ വെള്ളത്തിൽ കുളിച്ച് അവിടുന്ന് ഒത്തിരി പിന്നെ പാപശാന്തിയൊക്കെ നേടിയാണ് അവർ പോകാറുള്ളത് അവർക്ക് വളരെ വിശ്വാസമാണ് പെരുന്നാൾ തുടങ്ങി കഴിഞ്ഞാൽ ആ പെരുന്നാൾ തീരുന്നിടം വരെയും അവിടുന്ന് അവിടെ ഒത്തിരി ആൾക്കാർ വന്ന് തമിഴരാണ് കൂടുതൽ വരുന്നത് അവർ വന്ന് അവിടെ വന്ന് ഒത്തിരി എന്നാ പ്രാർത്ഥനയും എല്ലാമായിട്ട് നടത്തി അവിടെ പ നിറച്ച് ഭക്ഷണം കഴിക്കും പിന്നെ അവിടുന്ന് എനാ പോവാൻ ദേവാലയത്തിൽ പ്രാർത്ഥനയിലായിരിക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട് പിന്നെ ഇവിടുന്ന് ഒത്തിരി ആൾക്കാർ അവിടെ തീർത്ഥാടനത്തിനും പോകാറുണ്ട് എടത്വ പള്ളിയിൽ തീർത്ഥാടനം എന്നു പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മളവിടെ പോയി തീർത്ഥാടനം നടത്തി എന്നാ എല്ലാ പരിപാടികളിലും നമ്മൾ പങ്കെടുക്കാറുണ്ട് അവിടെ പിന്നെ ഒരു കായലിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒത്തിരിയും ആൾക്കാർക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദേവാലയമാണ് എല്ലാവർക്കും അവിടെ വരാം ഏത് ജാതിക്കാർക്കും അവിടെ വരാവുന്നതാണ് ദേവാലയത്തിൽ ഒരു ജാതിക്കാർക്ക് മാത്രമേ വരാവുള്ളൂന്ന് അങ്ങനെയൊന്നും ഇല്ല ഏത് ജാതിക്കാർക്കും അവിടെ എത്തി അവിടെ വിശുദ്ധ കുർബ്ബാനയിൽ പങ്കെടുക്കാം പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നതായിരിക്കും പിന്നെ പ്രാർത്ഥനയിൽ ഒത്തിരീം നമുക്ക് അനുഭവങ്ങൾ അവിടെന്ന് കിട്ടിയിട്ടുണ്ട് പുണ്യാളനാണ് അവിടത്തെ ഗീവർഗീസ് പുണ്യാളനാണ് അവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗീവർഗീസ് പുണ്യാളൻ എന്നു പറഞ്ഞ് നമ്മുടെ ഇഴ ജന്ധുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതാണ് പുണ്യാളൻ്റെ ഏറ്റോം ഇത് പിന്നെ ഒത്തിരീം മാറാ രോഗങ്ങൾ തലവേദന അങ്ങനെയുള്ള മാറാ രോഗങ്ങളാൽ ഒത്തിരി വിഷമിക്കുന്ന ഒത്തിരി ആൾക്കാർ അവിടെ വരാറുണ്ട് അങ്ങനെ വന്നാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണ് നമ്മൾ ഇഷ്ടിക തലയിൽ ചുമന്നു കൊണ്ട് പള്ളിക്കു ചുറ്റും പ്രദിക്ഷിണം നടത്തി നമ്മൾ അത് ചെയ്യാറുണ്ട് പിന്നെ അവിടുന്ന് നേർച്ച ചോറ് കഴിക്കാറുണ്ട് പിന്നെ ഇത്ര ദിവസം നൊവേന കൂടി നമ്മൾ അവിടുത്തെ പുണ്യാളച്ചനോട് പ്രാർത്ഥിച്ച് നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട് പിന്നെ പുണ്യാളച്ചൻ്റെ അനുഗ്രഹം നമുക്ക് ഒരുപാട് അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ് പിന്നെ നമ്മൾ ഒത്തിരി കുട്ടികളെയും കൊണ്ട് നമ്മൾ അവിടെ തീർത്ഥാടനത്തിന് പോകാറുണ്ട് സൺഡേ സ്കൂളീന്നായാലും പിന്നല്ലാതെയും എല്ലായിടവും എല്ലാ സ്ഥലത്തുന്നും ഒത്തിരി തീർത്ഥാടനത്തിനും ആൾക്കാർ അവിടെ എത്താറുണ്ട് കുഞ്ഞുങ്ങളാണ് കൂടുതലും അവിടെ പോകാറുള്ളത് എന്നാന്നു വെച്ചാൽ അവിടെ പിള്ളേരുടെ പരിപാടികളും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കാറുണ്ട് യുവജനങ്ങൾ അങ്ങനുള്ള എല്ലാ ആൾക്കാരും അവിടെ എത്തി ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കാറുണ്ട് അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ കൂടുതലും ഹൈന്ദവരായിരിക്കും അതാണ് ഏറ്റവും അവിടത്തെ പ്രത്യേകത പിന്നെ അവിടത്തെ ഒരു നേർച്ചയാണ് പാമ്പിനെ നമ്മൾ നീക്കി വെക്കുക നീക്കി വെച്ച് പ്രാർത്ഥിച്ചാൽ ഇഴ ജന്തുക്കളൊന്നും നമുക്ക് വരത്തില്ല ഇഴ ജന്ധുക്കളൊന്നും വരാതെ നമുക്ക് അവിടെ പ്രാർത്ഥന വീടുകളിലാണേലും നമുക്ക് സുരക്ഷിതരായിട്ട് ഇരിക്കാനായിട്ടുള്ള ഇത് നമുക്ക് ആ പുണ്യാളച്ചനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടും പുണ്യാളച്ചൻ്റെ അനുഗ്രഹമെന്നു പറയുന്നത് നമുക്ക് ഒരുപാട് അനുഗ്രഹം അനുഗ്രഹങ്ങളുണ്ട് പിന്നെ അവിടുന്ന് നൂല് നൂല് നമ്മൾ കയ്യിൽ കെട്ടി അത് കയ്യിൽ കെട്ടിക്കോണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അവിടെന്ന് വ്യഞ്ചരിച്ച് തരുന്ന നൂല് അവിടെന്ന് തരുന്ന നേർച്ച മെഴുകുതിരി കത്തിക്കൽ ഇതൊക്കെ അവിടത്തെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഒത്തിരി സ്ഥലത്തൂന്ന് ഒരുപാട് സ്ഥലത്ത് ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഇവിടെ ആൾക്കാർ എത്തി ഇവിടെ വന്ന് ഇത് ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനയ നൊവേനയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം നൊവേനയിൽ അവ എത്ര ഇതാണെങ്കിലും നൊവേന പങ്കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെന്ന് അനുഗ്രഹങ്ങളൊക്കെ കിട്ടും പിന്നെ പുണ്യാളൻ്റെ പ്രധാനപ്പെട്ട ഇത് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പുണ്യാളച്ചന് ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് അവിടെന്ന് തരാൻ സാധിക്കും ദൈവത്തോട് ഈശോയോട് അപേക്ഷിച്ച് നമുക്ക് അവിടെന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് നേടിത്തരാനായിട്ട് പുണ്യാളനെക്കൊണ്ട് സാധിക്കും പിന്നെ ഇവിടുന്ന് ഒത്തിരി ഞങ്ങളുടെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു കുടുംബ സമേതോം അല്ലാതെയും ഒക്കെ ഞങ്ങളവിടെ പോയി ഇതിൽ പങ്കെടുക്കാറുണ്ട് പ്രാർത്ഥന പങ്കെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് അതിന് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കുടുംബത്തിനുമെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ പുണ്യാളൻ്റെ അനുഗ്രഹം നമുക്ക് ധാരാളമായി കിട്ടുന്ന